ഹലോ ഇത് ആമസോണിൻ്റെ ഓഫീസല്ലേ ഓക്കെ നിങ്ങളുടെ മെനുവില് വന്നതിനുശേഷം എനിക്കൊരു ഫോൺ ആവശ്യമായിട്ടുള്ളതുണ്ടായിരുന്നു അപ്പോള് എനിക്കതില് മോട്ടറോള എഡ്ജ് ഫിഫ്റ്റി ഫ്യൂഷനല്ലേ ടു തൗസൻ്റെ് ട്വന്റി തൗസൻഡ് ഓക്കെ ആ ഹാ ഓക്കെ ഓക്കെ അതെടുത്താല്ക്കൊള്ളാമെന്നുണ്ട് അപ്പോള് എനിക്കതിൻ്റെ ആ ഒരു പ്രൊസീജറൊന്നു പറഞ്ഞുതരുമോ അത് കാർട്ടിൽ ആഡ് ചെയ്യാനുള്ള ആ ഒരു പ്രൊസീജറൊന്നു പറഞ്ഞുതരാൻ പറ്റുമോ എനിക്കിത് ഫസ്റ്റ് ടൈം ആയതു കൊണ്ട് എനിക്കതിൻ്റെ പ്രൊസീജിയർ അറിയില്ല അപ്പോള് നിങ്ങളൊന്നു വിവരിച്ചു തരികയാണെങ്കില് എനിക്കു വളരെയധികം ഉപകാരമായിരുന്നു ആ ഓക്കെ ആ ഞാൻ സെലക്ട് ചെയ്തുവച്ചിട്ടുണ്ട് സെലക്ട് ചെയ്തിട്ടുണ്ട് ഇരുപതിനായിരം മോട്ടറോള ഹ ഹാ ആ അതാദ്യം സെലക്റ്റ് ചെയ്തിനുശേഷം എന്താണു ചെയ്യേണ്ടത് ആ പ്രൈസൊക്കെ പ്രൈസൊക്കെ നോക്കിയാരുന്നു ആ ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടു ഓക്കേ ആ ജസ്റ്റ് സെലക്റ്റ് ചെയ്യുക ആ ഇതിപ്പോള് എത്ര ദിവസത്തിന്റെ ഉള്ളില് നമുക്കു ലഭിക്കുന്നത് ഓക്കെ റിട്ടേൺ പോളിസിയുണ്ടോ ശരി ആ ആ ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ ഇതിൻ്റെ എത്ര കളർ വേരിയേഷൻസ് അവൈലബിളായിട്ടുണ്ട് ഓക്കെ ആ ജസ്റ്റ് ഇത് സെലക്ട് ചെയ്തിട്ട് കാർട്ടിലോട്ട് ആഡ് ചെയ്യാം അല്ലേ ആ ഓക്കെ ഓക്കെ താങ്ക്യൂ എന്തായാലും കേട്ടോ